ഞാൻ ഓൺലൈൻ വഴി നമ്മൾ ഫോണിൽ കണ്ടപ്പോൾ നല്ല ഭംങ്ങിയുള്ള നല്ലൊരു വിലയുള്ള ഒരു സാരി ആണ് ഞാൻ വാങ്ങിയത് പക്ഷേ ഇവിടെ വന്നു ഞാനതുപയോഗിച്ചപ്പോൾ അതിൻ്റെ നൂലക്കെ ഇളകി പോവുകയും അതിൻ്റെ സ്വീക്കൻസക്കെ ഇളകി പോവുകയും വാഷ് ചെയ്തപ്പോൾ കളറെല്ലാം പോവുകയും ചെയ്തു അപ്പോൾ അത് ഒരു വളരെ മോശമായിട്ടുള്ള ഒരു ഇതാണ് എനിക്കത് ആ സാരി വാങ്ങിച്ചപ്പോൾ ഉണ്ടായ ഒരനുഭവം